ഞാൻ ഈ എ സി വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ആറ് മാസം ആകാനായി അപ്പോൾ ആദ്യത്തെ മാസങ്ങളിലൊന്നും എ സി ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് എ സി മര്യാദക്ക് പ്രവർത്തിക്കുന്നുണ്ടോന്ന് സംശയം ഉണ്ട് എ സിക്ക് തണുപ്പ് കൊറയുന്നതായിട്ട് തോന്നുന്നുണ്ട് ആദ്യത്തെ മാസങ്ങളിലെല്ലാം നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഏ സിക്ക് തണുപ്പ് കുറയുന്നതു പോലെ തോന്നുന്നുണ്ട് എന്തുകൊണ്ടാന്നറിയില്ല എ സി മര്യാദക്ക് പ്രവർത്തിക്കുന്നില്ല ആദ്യമെല്ലാം കിട്ടിയ തണുപ്പൊന്നും ഇപ്പം കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല എ സിക്ക് വാറന്റി ഒക്കെ ഉണ്ട് ഒന്ന് സർവീസ് ഒന്ന് സർവീസ് എല്ലാം ചെയ്ത് നോക്കണം ബാക്കിയുള്ള സ്ഥലങ്ങളിലെ എ സീനെ അനുസരിച്ച് ഇപ്പോൾ എൻ്റെ എ സിക്ക് തണുപ്പില്ലാത്തതായിട്ടാണ് തോന്നുന്നത് അതു മാത്രമല്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് എ സിയിൽ നിന്ന് വെള്ളം ലീക്കാവുന്നു ലീക്ക് ലീക്കാവുന്നുണ്ട് പുതിയ എ സിയാന്ന് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതെന്താന്ന് മനസിലാകാത്തത് പുതിയ എ സീ ക്ക് തണുപ്പ് കുറയുവും വെള്ളം ലീക്കാവുമെല്ലാം ചെയ്യുന്നു വെച്ചാൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഇങ്ങനൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ വാങ്ങുന്നത് അതാ അത് മാത്രമല്ല ഇത്രേം വലിയ പൈസേൻ്റെ സാധനങ്ങൾ നമ്മൾ വിശ്വസിച്ച് വാങ്ങുമ്പോൾ അപ്പോൾ അത് നന്നായിട്ട് പ്രവർത്തിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലാന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളത് വാങ്ങുക പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചാണ് ഉള്ളത് ഇത്രേ ആ വാങ്ങിച്ചിട്ടിപ്പോൾ ആറ് മാസം ആവാനാവുന്നതെയുള്ളൂ അതിന് ഉള്ളിൽ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രേം പൈസ മുടക്കീട്ട് അത് വാങ്ങിയത് കൊണ്ട് കാര്യമില്ലാണ്ടായി പോവൂലേ

എ സി നമ്മൾ വാങ്ങുന്നതെന്തിനാണ് ചൂട് ഉള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടീട്ടാന്ന് ചൂട് കുറക്കാൻ വേണ്ടീട്ട് അപ്പോൾ മര്യാദക്ക് തണുപ്പ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എ സിനെ കൊണ്ട് ഉപ് എ സിനെ കൊണ്ട് ഉപയോഗം ഒന്നും ഇല്ലല്ലോ ഇത്രേം പൈസ മുടക്കീട്ട് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല അങ്ങനാണെങ്കിൽ അത് പ്രശ്നങ്ങൾ എ സിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഉണ്ടാവില്ലാന്ന് പറയുന്നില്ല പക്ഷേ ഇത് ചെറിയ കാലയളവിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് കൊണ്ടാണ് ഇപ്പം പറയുന്നത് കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ നോർമൽ സാധാരണയാണ് എന്നു വിചാരിക്കാം പ്രശ്നങ്ങൾ പക്ഷേ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് അത്രെ ആയിട്ടുള്ളൂ അപ്പോഴ്ത്തേക്ക് തന്നെ എ സീടെ തണുപ്പ് കുറയുക അതുപോലെ തന്നെ വെള്ളം ലീക്കാവുക വെള്ളം ലീക്കായിട്ട് എന്ന് വെച്ചാൽ ചുമർ വൃത്തി കേടാവുന്നുണ്ട് അതും കൂടെ ആയതാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഇത്രേം പൈസ കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങീട്ട് ഇങ്ങനുണ്ടാകുമ്പോൾ നമുക്ക് ആ സാധനത്തിലുള്ള വിശ്വാസം കമ്പനീലുള്ള വിശ്വാസം നഷ്ടപ്പെടുവല്ലേ അപ്പോൾ അത് അവരോട് പറഞ്ഞ് ശരിയാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കമ്പനീലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ശരിയാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്